ചേട്ടാ ഒരു ടാങ്ക് പണിയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു

അല്ല അല്ല നമ്മുക്ക് പുറത്താണ് ആ നമ്മുക്ക് മഴ വെള്ളം ശേഖരിക്കാനാണ് ആ നമ്മുക്ക് ആ എന്നാ നമ്മക്ക് പതിനയ്യായിരം ലിറ്ററ് വലിയ ടാങ്കാ

നമ്മുക്കൊരു പത്ത് ഇരുപതിനായിരം റുപ്യേടെ ഉള്ളില് എന്താച്ചാ നാപ്പതിനായിരം ഒക്കെ ആകുവോ ആ ആ ശരി

ആ അത് ഒരു പത്ത് മുപ്പത്തഞ്ച് റുപ്യേൻ്റെ ഉള്ളില് ഒതുങ്ങില്ല്യേ

പുറത്ത് നമ്മൾ അത് വീടിൻ്റെ പുറത്തേ നമ്മക്ക് നല്ല മഴ മഴയുള്ള ഏരിയ ആണ് ഷീറ്റ് ഇടണ്ട മഴ വെള്ളം സംഭരിക്കാൻ ആണേ മഴ വെള്ളം സംഭരിച്ച് അത് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മക്ക് എന്നിട്ട് ഇവിടെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാല്ലോ വേണമെങ്കിൽ നിങ്ങൾ എപ്പഴാണ് വരിക അതിന് ഏകദേശം ഒരു ഒരാഴ്ച്ച രണ്ടാഴ്ച്ചേൻ്റെ ഉള്ളില് തീർക്കില്ലേ എങ്ങനേച്ചാ നിങ്ങള ഇഷ്ടം പോലെ നമ്മക്ക് നല്ല രീതിയില് ടാങ്ക് കിട്ടണം ആ നമ്മക്ക് അടി നല്ല ഒര് ടാങ്ക് എന്തായാലും നല്ല ക്വാളിറ്റി നല്ല സ്ട്രോംഗ് ക്വ ടാങ്ക് വേണം ആ ആ അത് ഒക്കെ നീ ഇന്ന് ഇപ്പോൾ അടുത്താഴ്ച പണിക്ക് വരുവാണെങ്കീൽ എന്നാ നമ്മക്ക് ഈ ആഴ്ച ഒക്കെ നമ്മക്ക് വേണ്ട സാധനങ്ങൾ ഒക്കെ ഇറക്കി ഇടാ

ആ ആ ആ ആ സാർ ആ പറഞ്ഞ് വെച്ചാൽ മതി എല്ലാം ഓ ഏഹ് ഏഹ് എന്താച്ചാ നിങ്ങടെ ഇഷ്ടം പോലെ ചെയ്യാ നമ്മക്ക് നല്ല ഒരു ആ നല്ല നമ്മക്ക് കൊറേ കാലം ആയിട്ട് ഇള്ളതാണ് ടാങ്ക് പണിയണന്ന് ഇള്ളത് കുറേ ആയിട്ട് എല്ലാരും പറയുന്നുണ്ട് അപ്പം അത് അങ്ങട് ചെയ്ത് തീർക്കാം ഈ പതിനയ്യായിരം പതിനേഴ് ലിറ്റർ ടാങ്കിന് എത്ര സിമൻറ്റും മണൽ ഒക്കെ വേണ്ടി വരും ദേ പത്ത് ഇരുപത് ചാക്ക് വേണ്ടി വരും ആ ആ ആ ആ ആ അതെ അതെ എത്ര ആയാച്ചാലും കുഴപ്പം ഇല്ല നമ്മുക്ക് നല്ലൊരു ആ നിങ്ങടെ വിശ്വസിച്ച് ഏൽപ്പിക്കയാണ് ഇത് ആ ആ എപ്പഴക്ക് പിന്നെ അടുത്താഴ്ച വരില്ലേ അപ്പം ആ ആ ആ ഓ ഓ ആ ആ ആ ഓ ഓ ഓ ശരി ശരി ആ മതി മതി എല്ലാം സെറ്റ് ചെയ്ത് ലാസ്റ്റ് ഇങ്ങോട്ട് തന്നാ മതി ആ ഓക്കെ ഓക്കെ